ഞാൻ ഉണ്ടാക്കുന്ന ലഘുഭക്ഷണങ്ങളെന്തൊക്കെയാണെന്ന് പറഞ്ഞാല് പഴം പൊരി ഉണ്ടാക്കും വീട്ടില് പിന്നെ നമ്മുടെ ബ്രെഡ് കട്ട്ലെറ്റ് ഒക്കെയില്ലെ അതുണ്ടാക്കും എഗ്ഗ് പപ്പ്സ് ഉണ്ടാക്കും പിന്നെ സുഗിയൻ എന്ന് പറയുന്നതില്ലെ പച്ചപ്പയറും അവിലും പഞ്ചസാരയൊക്കെ മിക്സാക്കിയിട്ട് മൈദാ മാവില് മുക്കിയിട്ട് എണ്ണയിലിട്ടിട്ടാണ് സുഗിയൻ ഉണ്ടാക്കുന്നത് പിന്നെ ഉണ്ടാക്കുന്ന ലഘുഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് അതൊക്കെ ലഘുഭക്ഷണങ്ങളാണ് പാചകമെന്ന് പറഞ്ഞാല് എല്ലാ പാചകവും ഇപ്പോഴുണ്ടാക്കുന്നുണ്ട് ഇപ്പം എല്ലാ പാചകങ്ങളും ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ഒരു ടെൻത്തില് പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് പാചകമെന്നത് ഇഷ്ടമേ അല്ല ചെയ്യാറില്ല ഒന്നും പഠിക്കുന്ന കാര്യം മാത്രമാണ് അപ്പം ശ്രദ്ധിക്കാറ് അമ്മ വയ്ക്കെന്ന് പറയുകയൊക്കെ ചെയ്യും കെട്ടോ എന്താ പാചകം പഠിക്കേണ്ടതാണ് സ്ത്രീകള് പഠിക്കേണ്ടതാണ് കുട്ടികൾ എന്നല്ല ഒരു ഒരു പെണ്ണായി ജനിച്ചാൽ അവര് പഠിക്കേണ്ടതാണ് പാചകം എന്നൊക്കെ പറയും ചേച്ചിയാണ് മുമ്പ് അമ്മയെ ഹെൽപ്പ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നത് ഞാന് പഠിക്കുന്ന കാര്യം മാത്രമാണ് ആ സമയത്ത് ശ്രദ്ധിക്കാറുള്ളത് അമ്മ നന്നായിട്ട് പാചകമൊക്കെ ചെയ്യും കെട്ടോ മത്തി മുളകിലിട്ട് വയ്ക്കുന്നത് ഫിഷില്ലേ മത്തി അത് മുളകില് വെക്കും പിന്നെ പുട്ട് ചൂടും നേരത്തെ എഴുന്നേറ്റിട്ടാണ് അമ്മ രാവിലത്തെ ഫുഡ് ഉച്ചയ്ക്കത്തെ ഫുഡ് ഏക് ഒക്കെ പ്രിപെയ്റ് ചെയ്തിട്ടാണ് പോകുന്നത് നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പഴേക്കും അമ്മക്ക് അമ്മയുടെ പണിയൊക്കെ ആകും കെട്ടോ അമ്മയുടെ പണിയൊക്കെ തീർത്തിട്ടാണ് അമ്മ പോകാറുള്ളത് നമുക്ക് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടേ അമ്മ പോവുകയുള്ളു ഇപ്പൊഴാണ് ശരിക്കും അതെന്താണ് എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് പാചകം ചെയ്യുന്ന രീതി എന്നൊക്കെ പഠിച്ചത് ഇപ്പോഴാണ് ഒരുപാട് ഒരു പ പണിയെടുത്ത് കഴിഞ്ഞാല് ആ ജോലിക്ക് വലിയ ഭാരമൊന്നും ഇല്ല ചെറിയൊരു ജോലി ആയി സിമ്പിൾ ആയിട്ട് തോന്നാവുന്ന ജോലികളേ ഉള്ളു വേഗം തീരാവുന്ന ജോലികളെ ഉള്ളു നമ്മുടെ ജീവിതത്തില് പാചകം ചെയ്യുന്നു എന്ന് പറഞ്ഞാല് പാചകത്തെ ആസ്വദിച്ച് കൊണ്ട് ചെയ്യുക എൻജോയ് ചെയ്ത് കൊണ്ട് ചെയ്യുക നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട് ചെയ്താല് ആ പാചകം നല്ല നല്ല രീതിയിൽ ആവുകയും ആസ്വദിക്കാനും കഴിയുന്നൊരു പാചകമായി മാറുകയാണ് ചെയ്യുന്നത് ഞാൻ ഈ മുമ്പൊന്നും പാചകമൊന്നും ചെയ്യാറില്ല കേട്ടോ പ്ലസ് ടു കഴിഞ്ഞാണ് ഏകദേശം പാചകം ചെയ്യുന്നതൊക്കെ എന്താ പാചകം ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ചായ ഉണ്ടാക്കാൻ പഠിച്ചത് തന്നെ ആ സമയത്താണ് പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് ചായ വെക്കാനൊക്കെ പഠിച്ചത് ചായ വെച്ച് കുടിക്കുന്നതൊക്കെ ആ സമയത്താണ് പിന്നെ ഞാൻ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ പാചകം പഠിക്കുന്നത് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പോയിട്ടാണ് കൂടുതൽ പാചകമൊക്കെ പഠിക്കുന്നത് പാചകം പഠിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാല് കുറച്ച് വ്യത്യസ്തമാണ് എൻ്റെ കാര്യത്തില് എൻ്റെ ഒരു ഭർത്താവാണ് പാചകം പഠിപ്പിക്കുന്നത് എൻ്റെ ഭർത്താവിന് എല്ലാ കാര്യങ്ങൾക്കും എന്താ രുചിയില്ല ഉപ്പ് പോരാ ഒര് മധുരം പോരാ എല്ലാ കംപ്ലൈൻറ്റ് പറയുന്ന ആളാണ് കേട്ടോ എൻ്റെ ഭർത്താവ് അപ്പം ഞാനങ്ങനെയാണ് പാചകം പഠിക്കുന്നത് തന്നെ ഞാന് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഫുഡൊന്നും അവർക്കങ്ങനെ രുചിയില്ലായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിനൊര് രുചി തോന്നാറില്ല ഇപ്പോഴാണെങ്കിൽ എൻ്റെ ഫുഡൊക്കെ എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ അമ്മ വെക്കുന്നതിനെക്കാളും നന്നായിട്ട് ഞാൻ വെക്കുന്നുണ്ടെന്നാണ് ഭർത്താവ് പറയാറ് നല്ല പാചകമാണ് നല്ല രീതിയിൽ വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് എന്നെ പുട്ട് ചുടാൻ പഠിപ്പിച്ചത് വരെ എൻ്റെ ഭർത്താവാണ് എങ്ങനെയാണ് പുട്ട് ചുടേണ്ടത് എന്ന രീതി എക്സ്പ്ലൈൻ ചെയ്ത് തന്ന് കാണിച്ച് തന്ന് പഠിപ്പിച്ചത് എൻ്റെ ഭർത്താവാണ് ഞാനിപ്പം പുട്ട് എനിക്കിഷ്ട്ല്ല കഴിക്കുന്നത് വരെ എനിക്കിഷ്ട്ല്ല പുട്ട് കഴിക്കാൻ വരെ ഇഷ്ടമല്ല പുട്ട് കഴിക്കാറുമില്ല ഭർത്താവിനാണെങ്കിൽ പുട്ട് വളരെ ഇഷ്ടമാണ് അങ്ങനെ ഭർത്താവ് ഒരു ദിവസം അടുക്കളയിലേക്ക് വന്ന് പുട്ടെങ്ങനെയാണ് ചുടേണ്ടതെന്നൊക്കെ പഠിപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പുട്ട് ചുടാനുള്ള ഒക്കെ രീതി കാണിച്ച് തന്ന് അത് കണ്ടിട്ടാണ് ഞാനാദ്യമായിട്ട് പുട്ട് ചുടാൻ പഠിക്കുന്നത് പിന്നെ പിന്നെ പാചക രീതി ഓരോന്ന് ഓരോന്നായിട്ട് പഠിക്കാൻ തുടങ്ങി ഇപ്പോൾ എൻ്റെ പാചകം വളരെ നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പറയാറ് നല്ല പാചകം ആണിപ്പോൾ ഞാൻ നെയ്യ് ചോറ് ഉണ്ടാക്കും ചിക്കൻ കറി വെക്കും പിന്നെ ഫുഡ് അതെ ഫിഷ് കറി വെക്കും ഫിഷ് ഫിഷ് ഫ്രൈ ഉണ്ടാക്കും പിന്നെ നമ്മുടെ കൂന്തല് ചെമ്മീന് ഇതൊക്കെ മസാല രൂപത്തില് വറുത്തിട്ടിട്ട് ഒക്കെ കേട്ടോ പൊരിച്ചിട്ട് വറുത്തെടുക്കും ചെമ്മീനൊക്കെ നല്ല രുചിയിൽ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി തക്കാളി സോസ് ഇതൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ പാചകം ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ഒരു ലഘുഭക്ഷണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പഴംപൊരിയാണ് കേട്ടോ വീട്ടില് കൂടുതലായിട്ട് കുട്ടികൾക്കിഷ്ടം പഴംപൊരിയാണ് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ചെയ്യേണ്ടത് പഴംപൊരി പഴം ആദ്യം മുറിക്കുക ഒരു പഴത്തിനെ നാല് പീസായിട്ട് മുറിച്ചിട്ട് പിന്നെ അതിനാവശ്യമായ കുറച്ച് മൈദ അതിലേക്ക് ലേശം ആവശ്യത്തിന് ഉപ്പ് പിന്നെ ലേശം പഞ്ചസാര ഇതൊക്കെ ഇട്ടിട്ട് കളറിന് ലേശം മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് നല്ല വിധത്തില് കുഴച്ച് വെച്ച് ഈ പഴം പൊരി തിളച്ച എണ്ണയിലേക്ക് പഴം എടുത്തിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പഴം എടുത്തിട്ട് മൈദയിലേക്ക് മുക്കി അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് മറിച്ചിട്ട് മുക്കി എണ്ണയിലേക്ക് തിളച്ച എണ്ണയിലേക്ക് ഇടും അത് രണ്ട് സൈഡും നല്ലൊരു വേവൊക്കെ ആകുമ്പോൾ പുറത്തെടുത്താൽ പൊരിക്കുമ്പോൾ തന്നെ ഒരു മണം വരും കേട്ടോ പഴം പൊരിക്കുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ല് വരും അതും കട്ടൻ ചായയും അടിപൊളിയാണ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ സ്നാക്ക്സ് എൻ്റെ ഭർത്താവിനും വീട്ടുകാർക്കുമൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സോയാ ചങ്ക്സ് ഫ്രൈ വളരെ ഇഷ്ടമാണ് അത് ഉണ്ടാക്കുന്ന റെസിപ്പി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം സോയാ സോയാ ചങ്ക്സ് ആദ്യം ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിക്കാൻ വെക്കുക അത് തിളച്ച് തിളപ്പിച്ചതിന് ശേഷം അത് ഇറക്കി വെച്ച് അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെള്ളം കളഞ്ഞിട്ട് അതിലേക്ക് മസാലകള് ഇടാം ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ആവശ്യത്തിന് ചിക്കൻ മസാല ആവശ്യത്തിന് കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് അതും ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ അതായത് ഫ്രൈ ചെയ്തിട്ട് മസാല ആക്കും കേട്ടോ അതിന് അത് ചെയ്യാനാവശ്യമായ ഉള്ളി തക്കാളി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ മാറ്റി വെക്കണം അത് മാറ്റി വെച്ചതിന് ശേഷം എണ്ണയിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് മായ ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ സോയാ ചങ്ക്സ് മസാല പെരക്കി വെച്ച സോയ ചങ്ക്സുണ്ടല്ലോ സോയ സോയാബീൻസ് സോയാബീൻ എന്ന് പറയും സോയാബീന് ആവശ്യത്തിന് കു റച്ച് കുറച്ചായിട്ട് ഫ്രൈ ആക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കും അതിന് ശേഷം അതേ എണ്ണയില് തന്നെ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ലേശം കടുകിട്ടിട്ട് അതൊന്ന് കടുക് വറുത്തതിന് ശേഷം അതിലേക്ക് ഉള്ളി ഇടുക ഉള്ളി ഇട്ട് ഒര് പത്ത് പതിനഞ്ച് മിനിറ്റ് ലേശം ഉപ്പിട്ടിട്ട് വയറ്റിയെടുക്കണം കേട്ടോ ഉള്ളി അതിൻ്റെ ഒരിത് പോകുവോളം അതിലൊരു തക്കാളി പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് അതൊന്നും കൂടി വഴയ്റ്റുക അത് നന്നായി വയറ്റിയതിന് ശേഷം അതിലേക്കാവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ഇടാം കേട്ടോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അത് പേസ്റ് ഉപയോഗിക്കാറില്ല ഇഞ്ചി വെളുത്തുള്ളിയുടെ കുത്തിയിട്ട് നമ്മുടെ ഒര് ക ഇത് ഉണ്ടേ അമ്മി ചെറിയോര് അമ്മി കുത്തുന്ന അതിലേക്കിട്ടിട്ട് കുത്തിയിട്ടാണ് അത് ഇടാറ് അതിട്ട് നന്നായി വയറ്റണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത് വയറ്റിയൊന്ന് ആകുവോളം വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടികൾ ചേർക്കുക മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് ലേശം ഉപ്പ്

വേണേൽ ചി ഒര് ചിക്ക കുറച്ച് ചിക്കൻ മസാലയിടാം എന്നിട്ട് നന്നായിട്ട് വയറ്റുക അത് വയറ്റിയതിന് ശേഷം ഈ പൊരിച്ച് വച്ച സോയ ചങ്ക്സ് ഉണ്ടല്ലോ പൊരിച്ച് വച്ച സോയ ചങ്ക്സ് അതിലേക്ക് മിക്സാക്കാം അതിലേക്ക് മിക്സാക്കിയിട്ട് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വയറ്റിയതിന് ശേഷം അതിലേക്ക് ലേശം കുരുമുളക് പൊടി ഇടാട്ടോ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചിട്ട് വെക്കണം ചെറു തീയില് ഒരു ഹാഫ് ഫ്ളൈമില് പത്ത് മിനിറ്റ് വെക്കണം പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം അത് തുറന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് തുറന്ന് നോക്കുക നല്ലൊരു സ്മെല്ല് വരും അത് റെഡിയായി ആ സമയത്ത് ലേശം കറി വേപ്പിലയും മല്ലിച്ചപ്പും അതിൻ്റെ മുകളിൽ വിതറി കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ സോയാ ചങ്ക്സ് എൻ്റെ വീട്ടില് എനിക്ക് മാത്രല്ല ആ ഫുഡിഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന സോയാ ചങ്ക്സിൻ്റെ മസാല എൻ്റെ ഭർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് പിന്നെ എൻ്റെ രണ്ട് കുട്ടികൾക്കും ഇഷ്ടമാണ് പിന്നെ വീട്ടില് വിരുന്നിന് വരുന്നത് ആരെങ്കിലും വിരുന്നിന് വരുന്ന ദിവസമൊക്കെ ഞാൻ അത് ഉണ്ടാക്കും കേട്ടോ അവർക്ക് കസിൻസിനൊക്കെ വളരെ ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന സോയ ചങ്ക്സ്